താങ്കളുടെ ബിസിനസ് യാത്രയിലുണ്ടായ ഒരു വൻ വിജയം അഥവാ അനുഭവപ്പെട്ട നിർണായക നിമിഷം സംബന്ധിച്ച ഒരു സംഭവകഥ പങ്കുവെക്കുക കാരണം ബിസ്നെസ് ഒരു യാത്രയാണെന്ന് പറയുകയാണെങ്കിൽത്തന്നെ നമുക്ക് എനിക്ക് പറയാനുള്ളത് കാരണം ലേറ്റസ്സ് ആയിട്ട് ഞാൻ ചെയ്തൊരു ബിസ്നെസ് ഉണ്ടായിരുന്നു കാരണം അത് എങ്ങനെയും തുടങ്ങണം അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു വ്യക്തമായ ഒരു പ്ലാനിങ്ങോ കാര്യങ്ങളില്ലാതെ തുടങ്ങിയ ഒരു ബിസ്നസ്സ് ആയിരുന്നു കാരണം ഞാനിപ്പോൾ ഒരു പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ആ ഒരു നിലയിൽ ഞാൻ ബിസ്നെസ് ചെയ്യുക എനിക്ക് പല നെഗറ്റീവ് കമൻസ് എല്ലാം കിട്ടി എന്നിട്ടുപോലും ഞാൻ ആ ഒരു ബിസ്നസ്സ് മുന്നോട്ട് നിർത്തി കാരണം ആരുടെയും വാക്കുകൾ കേൾക്കേം എനിക്കൊപ്പം എനിക്കു കുറച്ച് സപ്പോട്ട് ആയി എൻ്റെ ഫാമിലിയും ഫ്രണ്ട്സും ഉണ്ടായിരുന്നു ആ ഒരു സപ്പോട്ടിലെ ബലത്തിനാണ് ഞാനീ ബിസ്നസ് മുന്നോട്ട് മുന്നോട്ട് നടത്തിയത് അപ്പം ആ ബിസ്നസ്സ് എന്താ പറയുകയാണെങ്കിൽ ഞങ്ങൾ ഒരു ഇപ്പം ഇപ്പത്തെ ഒരു ജനറേഷന് വേണ്ടി ഞങ്ങളൊരു ഇപ്പത്തെ ജനറേഷന് അവൈലബിലിറ്റിയുള്ള ക്ലോത്സ് ഷൂസുമായിരുന്നു ഞങ്ങളെൻ്റെ ബിസ്നസ് മൈൻഡിലുള്ള അപ്പം ആ ബിസിനസ്സ് മൈൻഡ് വെച്ച് ഞാനൊരു ഷട്ര് ഐ മീൻ ഞങ്ങളുടെ ടൗണിലൊരു ഷട്ര് എടുത്തു എന്നിട്ട് ഞങ്ങളൊരു രണ്ട് ഫ്രണ്ട്സുംകൂടെ പോയിട്ടൊരു ബിസ്നസ് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തിട്ട് ഞങ്ങൾ അപ്പം അത്യാവശ്യം ഒരു ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പും ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പൊക്കെ തുടങ്ങി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു പിന്നേയും ഒരു സിക്സ് ഞങ്ങളൊരു ത്രീ ഫോർ മന്ത്സ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പേടിച്ചു കാരണം ബിസ്നസ്സ് കാര്യങ്ങളൊന്നും മുന്നോട്ട് നടക്കുന്നില്ല ഡള്ള് ആയൊരു ബിസിനസ്സ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് ഞങ്ങൾ പിന്നെയും ഇത് ഓക്കെ ആര് പറഞ്ഞെന്ന് പറഞ്ഞാലും മുന്നോട്ട് തന്നെ നീങ്ങണം ഒന്നും കേൾക്കാൻ പാടില്ല തളരാൻ പാടില്ല എന്നുള്ള ഒരു ഒറ്റ ബലത്തോടെ ഞങ്ങളിത് മുന്നോട്ട് നീക്കി കടമൊക്കെ മേടിച്ചാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അപ്പം ആ ഒരു ആ ഒരു സമയത്ത് എനിക്ക് ഉണ്ടായ ഒരു ഫീലിങ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓ നമ്മളെയുംകൊണ്ടൊന്നും പറ്റത്തില്ല നമ്മളൊന്നും ചെയ്യാൻ പറ്റത്തുള്ള ഒരു ഒരു ഒരു കാരണം നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട്നിന്ന് ഒരു സപ്പോട്ടോ കാര്യങ്ങളോ ഇല്ലാതെയാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തത് എത്രത്തോളം വിജയിക്കുന്നോ ഒന്നും അറിയത്തില്ലായിരുന്നു പെട്ടെന്ന് മനസ്സിലേക്കൊരു ബിസ്നസ് മൈൻഡ് വന്നു അങ്ങനെ ഇട്ട ഒരു ബിസ്നസ്സ് ആയിരുന്നു ഇത് അപ്പം ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞൊരു പിന്നെ ഞങ്ങൾ പയ്യെപ്പയ്യേ ഷോപ്പിൽനിന്ന് ഓരോ ക്ലോത്സ് ഒക്കെ ഓൺലൈൻ ആയിട്ട് ആൾക്കാരെ വിളിച്ച് ബൾക്കൊക്കെ ആയിട്ട് എടുക്കാൻ തുടങ്ങി അത്യാവശ്യം കുഴപ്പം ഇല്ലാത്ത ഒരു ഇതിൽ ബിസ്നസ്സ് നടക്കാൻ തുടങ്ങി ഇപ്പം ഇത് കുറച്ച് കുറച്ച് ബിസ്നസ്സ് സ്റ്റാർട്ട് ആയപ്പോൾ ഒരു നല്ല ഒരു കോൺഫ്ഡൻസ് കിട്ടാൻ തുടങ്ങി നന്നായിട്ട് കോൺഫ്ഡൻസ് കിട്ടി ഓക്കെയായി അപ്പം ഞങ്ങൾക്കൊരു കോൺഫ്ഡൻസ് ആയി അപ്പം ഞങ്ങൾ പിന്നെ ബൾക്ക് ആയിട്ട് ഓർഡർ എടുക്കാൻ തുടങ്ങി അപ്പം അതനുസരിച്ചുള്ള കടയിൽനിന്ന് വന്ന് കസ്റ്റമേഴ്സ് വന്ന് എടുക്കാൻ തുടങ്ങി ഓൺലൈൻ ആയിട്ട് ഓൺലൈൻ ആയിട്ട് പോവാൻ തുടങ്ങി അങ്ങനെ പല രീതികളിൽ ബിസ്നസ്സ് അങ്ങനെ മുന്നോട്ടുപോയി ഇപ്പം ഞങ്ങൾക്ക് നിലവിൽത്തന്നെ ഇപ്പം ഞങ്ങൾ ടൗൺലും കട്ടപ്പനയ്ലും കുമ്പിളുമായിട്ട് രണ്ടും മൂന്നും ബ്രാഞ്ചസ്സ് ആയിട്ട് ഞങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഔട്ട്ലെറ്റ്സ് അപ്പം അത്രത്തോളം അത് വലുതായി ഈ ബിസിനസ്സ് അപ്പം ആ ഒരു ബിസിനസ്സിലുണ്ടായ ഒരു ഇമ്പാക്റ്റ് ആ ഇമ്പാക്റ്റ് എൻ്റെ ലൈഫ് മാത്രമല്ല ഈ നെഗറ്റീവ് കമെൻറ്റ്സ് പറഞ്ഞ എല്ലാവരുടെയും കാഴ്ചപ്പാടിൽ ഞങ്ങൾ തിരുത്തി കൊടുത്തതാണ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല അത് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ധൈര്യം കാണിച്ച് കൊടുത്തു ഞങ്ങൾ എൻ്റെയും എൻ്റെയൊരു കൂട്ടുകാരനും കൂടെയാണ് കാരണം നമ്മൾ ആ സമയത്ത് ആ ഒരു തീരുമാനം മാറ്റി നിർത്തിയായിരുന്നെങ്കിൽ ഇങ്ങനൊരു ബിസിനസ്സ് അല്ലെങ്കിൽ ഇങ്ങനെയൊരു പ്രോഫിറ്റ് കിട്ടത്തില്ലായിരുന്നു ആ ഒരു എനിക്ക് എത്രത്തോളം ആ ഒരു പൈസ കിട്ടീന്നുള്ളേത്തൊരു വിജയത്തിനേക്കാളുപരി ഞാൻ സന്തോഷിക്കുന്നത് ബാക്കിയുള്ള ആൾക്കാരുടെയും മനസ്സിൽ നമ്മൾ ഒരു റോൾ മോഡല് ഓക്കെ അവരെയുംകൊണ്ട് ചെയ്യാൻ പറ്റി കൊള്ളാം അവർ ഓക്കെ യുവജനങ്ങൾക്ക് മാതൃകയായി അങ്ങനെയൊരു പറച്ചിൽ ആ ഒരു വിജയം ആണ് എൻ്റെ ജീവിതത്തിലൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വിജയമാണ് ഞാൻ കണ്ടത് കാരണം പല ആൾക്കാർ ബിസ്നസ് സ്റ്റാർട്ട് ചെയ്ത് മുതിർന്നവർ പല ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് എത്രത്തോളം മുന്നോട്ട് പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ട് അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങളിങ്ങനെ ബിസിനസ്സ് കൊണ്ടുവന്നു നല്ല നിലയിൽപ്പോയി ഞങ്ങളിപ്പത്തന്നെയൊരരു നാലഞ്ച് ഔട്ട്ലെറ്റ് ഇട്ടു നല്ല വരുമാനമായി എന്നിട്ടും അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് ശമ്പളം ഞങ്ങൾക്ക് കിട്ടാൻ തുടങ്ങി നല്ലയിത് സാലറി കിട്ടാൻ തുടങ്ങി എല്ലാം കിട്ടി അപ്പം അതിനേക്കാളുപരി നമുക്ക് ആൾക്കാരുടെ അയ്യേ നമ്മൾ ആൾക്കാരെ മാറ്റിപ്പറയാൻ നെഗറ്റീവ് കമെൻറ്റ്സ് പറഞ്ഞ് ആൾക്കാരുടെ മുൻപിൽ നമുക്ക് തലയുയർത്തി നിൽക്കാൻ പറ്റുന്ന ഒരു അവസരമായിരുന്നു ആ ഒരു അവസരത്തെയാണ് ഞാൻ ഏറ്റവും കൂടുതലും എൻ്റെ ലൈഫിൽ വിജയമായിട്ട് കണ്ടെത്തിയത് കാരണം ആ ഒരു വിജയമാണ് ആ ഒരു വിജയത്തിലൂടെ എനിക്കും എൻ്റെയുള്ളിൽത്തന്നെ എനിക്കൊരു കോൺഫ്ഡൻസ് ലെവല് എനിക്കൊരു ആത്മധൈര്യം കിട്ടി ആ ഒരു ബിസ്നസ്സ് ആണ് എനിക്ക് ജീവിതത്തിലൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ബിസിനസ്സ് ആയി എൻ്റെ ഓർമയിലുള്ളത്